എനിക്ക് നമ്മുടെ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് ഒരു പിന്നെ ക്യാബ് ബുക്ക് ചെയ്യണമായിരുന്നു അപ്പം നല്ല നല്ല ആൾക്കാർ ആരെങ്കിലും പരിചയത്തിൽ ഉണ്ടെങ്കില് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊൾ നമുക്ക് നിന്നോടൊക്കെ ആകുമ്പം നമുക്ക് ചോദിക്കാലോ ധൈര്യായിട്ട് ആരാണ് എങ്ങനെ ഉള്ളവരാണ് എന്നക്കെ അപ്പ അതിൻ്റെ റേറ്റ് നമുക്ക് എനിക്ക് ഇവിടുന്ന് പിന്നെ പോയി നമുക്ക് അവിടെ കൊറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് എന്നെ പിക്ക് ആപ്പും ഡ്രോപ്പുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ക്യാബ് ബുക്ക് ചെയ്ത് തിരിച്ച് അപ്പം ഇവിടെ എത്തുമ്പം എത്ര രൂപ അവര് ചാർജ് ചെയ്യും എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടായിരുന്നു കാരണം അവരുടെ ചാർജിങ് എത്രയാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ബാക്ക് അപ്പിന് നല്ല വിശ്വാസ്തം ഉള്ള ഒരാളും കൂടെ ആയിരിക്കണം നമ്മള് പെണ്ണുങ്ങള് രണ്ട് പെണ്ണുങ്ങളല്ലേ പോകുന്നേ അത് കൊണ്ടാ നീ ഒന്ന് അന്വേഷിച്ചിട്ട് പറയുവാണെങ്കില് നല്ലതായിരുന്നു